മലപ്പുറമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരുപാട് വ്യവസായങ്ങളുടെ ഒരു നഗരമാണ് മലപ്പുറം ഒരുപാട് വ്യവസായങ്ങൾ നടക്കുന്ന ഒരു പ്രധാന ഒര് സ്ഥലം തന്നെയെന്ന് നമുക്ക് മലപ്പുറത്തെ പറ്റി പറയാം ഇപ്പോൾ കൃഷിയിലാണെങ്കിലും ഉൽപ്പാദനത്തിലാണെങ്കിലും സേവന മേഖയില് മേഖലയിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മലപ്പുറത്ത് കൃഷി കഴിഞ്ഞ് കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ നമ്മളുൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ വ്യവസായമാണ് നമ്മുടെ പരുത്തി തുണി തുണി വ്യവസായം തുണികൾ ഒരുപാട് നമ്മൾ നമ്മുടെ മലപ്പുറത്തൊരുപാട് ഉൽപ്പാദിപ്പിക്കാറുണ്ട് പിന്നെ നമ്മുടെ ഒരുപാട് അതിപോലെ തന്നെ ഗൾഫിൽ നിന്ന് വരുന്ന സാമ്പത്തിക സ്രോതസ്സിന് നമ്മുടെ മലപ്പുറത്തിന് ഒര് മുതൽ കൂട്ടാണ് ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ തുണിക്കടകൾ അനവധി അനവധി കടകൾ എല്ലാ കാര്യം എല്ലാ കാര്യങ്ങൾ കൊണ്ടും മലപ്പുറം മുന്നിട്ട് നിൽക്കുന്നു ആ നമ്മുടെ മലപ്പുറത്തിപ്പോൾ കയറ്റുമതീൻ്റെ കാര്യത്തിലാണെങ്കിലും ഇറക്കുമതീൻ്റെ കാര്യത്തിലാണെങ്കിലും മലപ്പുറം ഒര് വേറിട്ട് നിൽക്കുന്ന ഒരു ജില്ല തന്നെയാണ് പിന്നെ കൂടാതെ നമ്മുടെ മലപ്പുറത്ത് എന്താ വെഡ്ഡിംഗ് സെൻറ്റേർസ് ഒരുപാടുണ്ട് ആ ആ ഫാമിലി വെഡ്ഡിംഗ് സെൻ്ററുണ്ട് കസവ് കേന്ദ്ര അതുപോലെ തന്നെ ഹിപ് ഹോപ്പ് ഹൊറിസോണ് അങ്ങനെ ഒരുപാടൊരുപാട് വെഡ്ഡിംഗ് സെൻറ്റേർസും ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുമടങ്ങുന്നതാണ് മലപ്പുറം മലപ്പുറം നമ്മുടെ കേരളത്തിൽ കേരളത്തില് ഒര് വരുമാന സ്രോതസ്സ് തന്നെ മലപ്പുറത്തു നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളം നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഒര് വേറിട്ട് നിൽക്കുന്നൊരു സംസ്ഥാനമാണ് അതിൽ ഏറിയ പങ്കും നമ്മുടെ മലപ്പുറത്ത് നിന്ന് കിട്ടുന്നു പിന്നെ കൃഷിയുടെ കാര്യത്തിൽ നിന്നാണെങ്കിൽ തന്നെ നമ്മളൊരുപാട് നെല്ല് അടയ്ക്ക തേങ്ങ അതുപോലെ തന്നെ റബ്ബറ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അത് ശരിക്കൊരു നമ്മുടെ സംസ്ഥാനത്തിലും അതിലുപരി നമ്മുടെ രാജ്യത്തിലും രാജ്യത്തിൻ്റെയും ഒരു ജി ഡി പി മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിന്റെ വളർച്ചയ്ക്ക് തന്നെ അതൊര് മുതൽ കൂട്ടാണ് പിന്നെ ഇവിടെ എന്ത് കല്ല്യാണമുണ്ടെങ്കിലും എല്ലാവരും തുണിത്തരങ്ങളൊരുപാട് വാങ്ങുന്നവരാണ് എന്ത് പരിപാടികളുണ്ടെങ്കിലും ഒരുപാടാളുകൾ തുണിത്തരങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നവരാണ് അതിനാൽ തന്നെ ആ തുണി വ്യവസായത്തിന് അത് വളരെ വലിയ ഒരു പങ്കായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ഫാക്ടറികളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ അസംസ്കൃത വസ്തുക്കളുണ്ടാക്കുന്ന ഫാക്ടറി രാസപദാർത്ഥങ്ങളുണ്ടാക്കുന്ന ഫാക്ടറി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മലപ്പുറത്തുണ്ട് പിന്നെ ഐ ടി മേഖലയിലാണെങ്കിൽ തന്നെ ഇപ്പോൾ വളർന്ന് കൊണ്ടിരിക്കുകയാണ് ഒര് കാലത്ത് ഐ ടി മേഖലയിൽ താഴ്ന്ന് നിൽക്കുകയായിരുന്നു മലപ്പുറം എന്നാൽ ഇപ്പോഴൊക്കേയും ഐ ടി മേഖലയിൽ ഒരുപാടൊരുപാട് ഉയർന്ന് നിൽക്കുന്നു

ഒരുപാട് ഒരുപാട് വിദേശികളും പ്രവാസികളും ഒരുപാട് ഉള്ളത് കൊണ്ട് മലപ്പുറം ജില്ലയിലുള്ളത് കൊണ്ട് മലപ്പുറത്തിൻ്റെ മൂലധനം കൂടി കൂടി വരുകയാണ്